അങ്ങനെ ഉള്ള ഭാഷ സംസാരിക്കുന്ന കേരളീയരാകാം മറ്റ് രാജ്യങ്ങളിലേക്കൊ മറ്റ് സ്റ്റേയ്റ്റ്കളിലേക്കൊ പോകുമ്പോളത്തേക്കും അവരുമായിട്ട് ബന്ധപ്പെടുന്നതിന് നമ്മുടെ മ മലയാളഭാഷ എല്ലാവർക്കും തയാർ മനസിലാകണമെന്നില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും നമ്മുടെ ആശയങ്ങള് അവരിലേക്ക് പങ്കുവെക്കുവാനുമായിട്ട് മലയാളം മാത്രം പോര അതിന് മറ്റ് ഭാഷ അല്ലെൽ ഇംഗ്ലീഷ് അല്ലേൽ ഹിന്ദിയോ തമി തമിഴോ തെലുങ്കോ നമ്മള് പഠിച്ചിരിക്കണം അപ്പോഴ് നമ്മൾള് നമ്മടെ മലയാളം നല്ലപോലെ വായിക്കാനും പഠിക്കാനും അറിഞ്ഞിരിക്കണം അത് നമ്മുടെ ദേശീയ മാതൃഭാഷയായ മലയാളം നമുക്ക് എപ്പോളും നമ്മുടെ അമ്മ തന്നെയാണ് ആ അമ്മയെ നമ്മൾ മറക്കാനൊരിക്കലും പാടില്ല ഏത് ഏത് ലോകത്തിലെ ഏത് ഭാഷകള് പഠിച്ചാലും അല്ലെൽ ഏത് രാജ്യത്തെ ഏ ഏത് ഭാഷകൾ പഠിച്ചാലും നമ്മുടെ നമുക്ക് നമ്മുടെ മലയാളത്തെ മറക്കാൻ സാധിക്കില്ല അത് നമ്മുടെ പെറ്റമ്മയാണ് ആ പെറ്റമ്മയെ നമ്മളാരും മറക്കത്തില്ല എന്നത് പോലെ തന്നെ നമ്മളുടെ ഭാഷയെ നമ്മള് സംരക്ഷിക്കണം നമുക്ക് എന്ത് വരുന്നാലും നമുക്ക് മറ്റ് രാജ്യങ്ങളിലെ ഇപ്പം നമ്മള് ജോലിതേടി മറ്റുരാജ്യങ്ങൾലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ അവിടുത്തെ ഭാഷകൾ അറബിയോ തെലുങ്കോ അല്ലെങ്കിൽ ജർമ്മനിയോ മറ്റ് ലോകത്തുള്ള ഏത് ഭാഷകളും നമുക്ക് പഠിക്കാൻ സാധിക്കണം സാധിക്കും എന്നെങ്കിൽമാത്രമേ മലയാളം കൊണ്ട് മാത്രമെ നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കില്ല മലയാളം നമ്മള് നേരിടുന്നതിലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും മാലാ മലയാളത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ മലയാളവും തമിഴും ത തമിഴും തമ്മിൽ സാമ്യമുണ്ട് അതായത് ഏകദേശം മലയാളം സംസാരിക്കുന്നവർക്ക് താ തെലുങ്ക് തമിഴരുവായിട്ട് സംസാരിക്കാൻ കുറെ എങ്കിലുമൊക്കെ സാധിക്കും പക്ഷെ മറ്റ് ഭാഷകള് സംസാരിക്കാൻ മറ്റ് സ്റ്റേറ്റിലെ ഭാഷകൾ സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അത് ഒരു ദൂഷ്യമാണ് അതിന് ബുദ്ധിമുട്ടാണ് ആശയവിനിമയം നടത്താനായിട്ട് പൊതുവെ സാധിക്കണം നമുക്ക് അതിപ്പം നമ്മൾ ഒരു മറ്റ് രാജ്യ ആളുകളുവായിട്ട് സംസാരിക്കാൻ വരുന്നത് ഒര് വെല്ലുവിളി തന്നെയാണ്